ആ ചേട്ടാ നമസ്കാരം നമസ്കാരം ഞാൻ ഇന്നലെ ജോയിൻ ചെയ്ത ആളാണേ അപ്പം എനിക്ക് ഇവിടുത്തെ ജോലിയും കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് ഒന്ന് പറഞ്ഞ് തരുമോ ആ ആ ആ അത് കുഴപ്പമൊന്നും ഇല്ല ആ എല്ലാ ദിവസവും രാവിലെ ഒരു എട്ടരയെന്ന് പറയുമ്പം ഒരു ഒമ്പത് മണി ആയാലും കുഴപ്പം ഇല്ലല്ലോ അല്ലേ ഇപ്പം നമുക്ക് ലോഡ് ഇല്ലാത്ത ദിവസം ആ ആ ആ നമുക്ക് ഇപ്പം വൈകുന്നേരം എത്ര മണി വരെ നിൽക്കേണ്ടി വരും ലോഡ് ഇല്ലാത്ത ദിവസം

അല്ല അതൊന്നും കുഴപ്പമില്ല നമുക്ക് ഇപ്പം മാക്സിമം എത്ര ദിവസം ലോഡ് ഉണ്ടാവും മാസത്തിൽ അതെയല്ലേ പതിനാറ് ആ പതിനാറ് പതിനാറ് ദിവസമേ ഓട്ടം ഉള്ളൂ പിന്നെ നമുക്ക് ആ ഓക്കെ ഇപ്പം ഈ വണ്ടിയുടെ മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്

അതെ അതെ അതെ ശരി ആ ഓക്കെ ഇപ്പം നമ്മളെ നോക്കുകയാണെങ്കിൽ ഇപ്പം വണ്ടി ഇപ്പോൾ ആ അല്ല വണ്ടി എവിടെ എങ്കിലും ഇപ്പോൾ ഇപ്പോൾ പ്രസൻ്റ് കണ്ടീഷനിൽ വണ്ടിക്ക് കംപ്ലയിൻ്റ് എന്തെങ്കിലും ഉണ്ടോ ആ ആ ഒക്കെ ചേട്ടാ ആ എന്നാൽ ഇപ്പം ഞാൻ എന്നാൽ പണിക്ക് ഇറങ്ങട്ടെ ഇപ്പം ഇന്ന് ഇപ്പോൾ വണ്ടി ഒന്ന് ഓടിച്ചിട്ട് റൗണ്ട് എടുത്തിട്ട് വരാം അല്ലേ എന്നാൽ നോക്കിയിട്ട് ഞാൻ ഇപ്പം വരാം എന്നാൽ ശരി ചേട്ടാ ശരി